ആ ആ അത് കിട്ടിയായിരുന്നു നിങ്ങളുടെ സർവീസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രോഡക്് ഒക്കെ അടിപൊളി ആയിരുന്നു ഉപേയാഗിച്ചൊക്കെ നോക്കി ആ നിങ്ങൾ ഓ എത്തി എത്തി പിന്നെ നിങ്ങളുടെ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം പറഞ്ഞ ടൈമിനുള്ളിൽ സാധനം കൊണ്ടുതരിക എന്നു പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്

പുതിയ പ്രോഡക്റ്റ് ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ അഹ് ഞാൻ പുതിയ ഒരു പ്രോഡക്റ്റ് നോക്കുന്നു ഒരു ജാക്കറ്റ് നോക്കുന്നു അഡിഡാസിൻ്റെ പുതിയ ഒരു ഇതായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലാക്ക് ആ ഒരു ബ്ലാക്കാണ് ഞാൻ ഉദേശിക്കുന്നത് ഒരു ബ്ലാക്ക് ജാക്കറ്റ് അപ്പം അതിന് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓൺലൈൻ വഴി പയ്മെൻ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറവ് എന്തെങ്കിലും കിട്ടുമോ ആ ഇങ്ങനെ ഞങ്ങൾ ഇനിയും ഫ്ലിപ്കാർട്ടിൽ നിന്നു കുറെ ഉണ്ട് ഷോപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു നിങ്ങളുടെ സർവീസ് ഓ ഓക്കേ ഓക്കേ അല്ലേൽ നമ്മൾ ഇപ്പോൾ ഗൂഗ്ൾ പേ വഴി ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ആ ക്യാഷ് ഓൺ ഡെലിവെറി ഉണ്ട് അല്ലേ ആ ഓക്കേ ഓക്കേ നിങ്ങളുടെ കമ്പനി എവിടെ ആയിട്ടായിരുന്നു വരുന്നത് ഇവിടെ ഈ ലൊക്കേഷനിൽ ആ മാനന്തവാടി ഓക്കേ ഓക്കേ അപ്പം അതുകൊണ്ടാണ് അല്ലേ പെട്ടെന്നു എത്തിക്കാൻ പറ്റിയത് ആ ഓക്കേ